ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം ആരോഗ്യ സംരക്ഷണത്തെ ബാധിക്കും കാരണം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമുക്ക് ആശുപത്രി ഇപ്പോൾ നമ്മുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം പുറത്ത് വേറെ ഒരു ജില്ലയിലോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഗതാഗത സൗകര്യം ഉണ്ടായിരിക്കണം നമുക്ക് ഇപ്പോൾ ഒരു പിന്നെ ട്രാഫിക് കൂടിയ ഒരു സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ ഒരു ആംബുലൻസിൽ പോകണമെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് എമർജൻസി ഇപ്പം പെട്ടന്ന് ന നല്ല സീരിയസ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ട്രാഫിക് ആണെങ്കിൽ നമുക്ക് ഒരു പകുതി ഹോസ്പിറ്റലിൽ പെട്ടന്ന് എത്താൻ ആയിട്ട് സാധിക്കില്ല അപ്പോൾ അത് ഒരു വലിയ ഒരു പ്രശ്നമാണ് അപ്പം അ ആ പേഷിയൻറ്റിൻ്റെ മരണം വരെ സംഭവിക്കാം അത് അതുപോലെതന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പം ഒരു ആംബുലൻസ് തന്നെ ഇപ്പോൾ ദൂരെയൊക്കെ വേറെ ജില്ലയിലൊക്കെ എമർജൻസി ആയിട്ട് പോകുമ്പോൾ നമുക്ക് ആംബുലൻസ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ഇവിടുന്ന് നമ്മൾ വയനാട്ടിൽ ഉള്ളവർക്കൊക്കെ എല്ലാവരെയും പെട്ടന്ന് കൊണ്ടുവന്ന് കോഴിക്കോട് ആക്കുവാണല്ലോ അപ്പോൾ കോഴിക്കോടേക്ക് ഒരു മൂന്നര മൂന്ന് മൂന്ന് മൂന്നര മണിക്കൂർ എടുക്കും അപ്പോൾ ചുരം ഒക്കെ ഇറങ്ങി പോകുമ്പോൾ അവിടെ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് ഗതാഗത സൗകര്യം മതിയ മതിയാവോളം ഇല്ലെങ്കിൽ അത് ആരോഗ്യ മേഖലയെ നന്നായിട്ട് ബാധിക്കും